സ്കൂളിനു പുറത്തുള്ള ട്യൂഷനെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ പിന്നെ എന്തിനാണ് കുട്ടികളെ സ്കൂളിൽ വിടുന്നത് കുട്ടികൾക്ക് വേണ്ട വിദ്യാഭ്യാസം സ്കൂളുകളിൽ നിന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വിദ്യ ആർജിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ സ്കൂളിൽ വിടുന്നത് അപ്പോൾ അതിൻ്റെ അപര്യാപ്തത ആണ് അത് ആവശ്യത്തിന് സ്കൂളിൽ നിന്ന് നല്ല രീതിയ്ക്ക് കുട്ടികൾക്ക് പാഠഭാഗങ്ങൾ പറഞ്ഞു കൊടുക്കാത്തതും അത് മതിയാവാത്തതും കൊണ്ടാണല്ലോ കുട്ടികൾ പുറത്ത് ട്യൂഷൻ അവർക്ക് സഹായത്തിനായിട്ട് കൊടുക്കുന്നത് അതിനെക്കുറിച്ച് എനിക്ക് മോശമഭിപ്രായമാണ് ഉള്ളത് കാര്യം ഒരു കുട്ടി രാവിലെ തൊട്ട് ഒരു ഒൻപത് മണിതൊട്ട് വൈകുന്നേരം ഒരു മൂന്നു നാല് മണിവരെത്തന്നെ അത്രയും മണിക്കൂർ സ്കൂളിൽ പഠനമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും ആ കുട്ടിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അടുത്തൊരു ട്യൂഷനു വിടുകയെന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പേർസണലി ഞാൻ ട്യൂഷനു പോയി പഠിച്ച ഒരാളാണ് അപ്പം എന്നെ സംബന്ധിച്ച് മാത്രമല്ല എനിക്ക് അറിയാം എന്നുള്ള ആൾക്കാരെ സംബന്ധിച്ചായാലും അതൊരു വലിയ ബുദ്ധിമുട്ടാണ് മടുക്കും പഠിത്തത്തിനെക്കുറിച്ച് തന്നെ ഒരു അവജ്ഞ ആ കുട്ടിയുടെ മനസ്സിൽ രൂപപ്പെടാനായിട്ട് ഈ ട്യൂഷൻ വഴിയൊരുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം പഠനത്തിൽ കുട്ടിക്ക് നല്ല സന്തോഷത്തോടെ ശ്രദ്ധയോടുകൂടി പഠിക്കണം എങ്കിൽ ആ സമയം ഒരുപാട് സമയം പഠിത്തം പഠിത്തം പഠിക്ക് പഠിക്ക് എന്ന് പറയുന്നത് ആ കുട്ടിക്ക് ബുദ്ധിമുട്ടാവും അപ്പം ട്യൂഷൻ്റെ ഒരു പ്രഷറിനേകാട്ടിയും നല്ലത് ആ കുട്ടിക്ക് സ്കൂളിൽ തന്നെ ആവശ്യത്തിന് വേണ്ടുന്ന അറിവ് സ്കൂളുകാർ തന്നെ പറഞ്ഞു കൊടുക്കുന്നതാണ് ഇപ്പം ട്യൂഷൻ എന്നെ സംബന്ധിച്ച് ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ് പിന്നെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഒരു പേഴ്സണലായിട്ടുള്ള അറ്റൻഷനും സഹായവുമൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ ഒരു പേഴ്സണൽ ട്യൂട്ടറിൻ്റെ അടുത്ത് വിടുന്നത് നല്ലതാണ് പക്ഷെ അതല്ലാത്തപക്ഷം പൊതുവെ ഇപ്പം നമ്മൾ കണ്ടുവരുന്നതും കൂട്ടത്തോടെ ആൾക്കാർ ട്യൂഷനു കുട്ടികൾ കൂട്ടത്തോടെ പോവുകയാണ് അതിൻ്റെ ഒരു ആവശ്യകത ഇല്ല പഠനത്തിൽ സഹായം കൂടുതലായി വേണ്ട കുട്ടികൾ ഇപ്പോൾ ട്യൂഷനു പോകുന്ന നല്ലതാണ് പക്ഷെ അതല്ലാതെ എല്ലാവരും കൂട്ടമായിട്ട് ട്യൂഷനു പോകുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല